ഹലോ അതേ സാറേ

പനി പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റല്ലായിരുന്നു

പതിനഞ്ച് ദിവസം ഈ മാസം ഞാൻ അതിൻറ്റോടെ ടാർജറ്റ് ചെയ്തോളാം ഞാൻ എത്തിക്കോളാം ആ ഞാൻ എത്തിക്കോളാം

ആ ഓക്കെ ഓക്കെ ഇനിയുണ്ടാവാത്തില്ല സാറേ ഓക്കെ താങ്ക് യൂ